നമ്മുടെ മലയാളഭാഷയെ ഹിന്ദിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പാറ്റത്തൊന്നുമില്ല നമ്മുടെ മാതൃഭാഷയായ മലയാളമാണ് എല്ലാവർക്കും ഇഷ്ടം നമ്മളത് പഠിച്ചാണ് വളർന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമേ മലയാളം സംസാരിക്കാറുള്ളു അത് കഴിഞ്ഞ് കേരളത്തിന് വെളിയിൽ പല സംസ്ഥനങ്ങളിലും ഹിന്ദി സംസാരി ഹിന്ദി ഭാഷയുണ്ട് അപ്പോള് മലയാളത്തിനോടും ഹിന്ദിയോടും താരതമ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല വേറെ തമിഴ് പോലെ സംസാരിക്കുന്ന ഭാഷകളെല്ലാം തമിഴോ വേറെ ഇപ്പോള് വേറെ ഇംഗ്ലീഷോ ഒക്കെ അത് മലയാളവുമായിട്ട് കംപെയര് ചെയ്യാനൊന്നും പറ്റുകേല നമ്മള് പിന്നെ ഹിന്ദി നമ്മുടെ ഭാഷകള് നമ്മളിപ്പോള് മലയാളം പഠിക്കുന്നു ഇപ്പോള് ദേ സ്കൂളുകളിൽ ഇപ്പോള് ഹിന്ദി പഠിപ്പിക്കുന്നൊക്കെയുണ്ട് അതുകൊണ്ട് കുറച്ച് കുട്ടികൾക്കൊക്കെ ഹിന്ദി കുറച്ചൊക്കെ അറിയാമെന്നേ ഉള്ളു നമ്മളിപ്പോള് മലയാളമായതുകൊണ്ട് നമ്മൾക്കതാണ് ഏറ്റവും ഇഷ്ടം നമ്മള് മലയാളം സിനിമാ കാണുന്നു മലയാളം എല്ലാം മലയാളം വായിക്കുന്നു മലയാളത്തിൽ ഉള്ളതാണ് നമ്മള്ക്കെല്ലാവർക്കും ഇഷ്ടം മലയാളം തന്നെയാണ് ഹിന്ദി അങ്ങനെ ഹിന്ദി ഭാഷായായിട്ട് താരതമ്യം ചെയ്യാൻ ഹിന്ദിയും മലയാളവും കൂടി ഭാഗം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഹിന്ദി എന്ന് പറഞ്ഞെന്നാൽ വെളിയിൽ എല്ലാ കേരളത്തിനു വെളിയിൽ പോയാല് എല്ലാവര്ക്കും ഹിന്ദി പഠിച്ചിരിക്കണമെന്നുള്ളതുകൊണ്ട് എന്തോ എല്ലായിടത്തും ഹിന്ദി കുറേ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പോള് നമ്മള്ക്കും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിനോടാണ് ഇഷ്ടം മലയാളം എഴുതാനും വായിക്കാനും സിനിമ കാണാനും പാട്ട് പാടാനും എല്ലാം മലയാളം തന്നെയാണ് നമ്മളുപയോഗിക്കുന്നതുകൊണ്ട് മലയാള ഭാഷയെ തന്നെയാണ് അത് ഹിന്ദിയുമായിട്ട് താരതമ്യം ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല